കൊറോണയ്ക്ക് ശേഷം ടൂറിസം മേഖലയിൽ ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു കൊറോണ ആയതു കൊണ്ട് തന്നെ എയർപോർട്ടോ വിദേശയാത്രകളും ഉണ്ടായിരുന്നില്ല വിദേശികൾക്ക് അങ്ങനത്തെ ടൂറിസവും ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നിപ്പം രണ്ടുകൊല്ലമായിട്ട് എല്ലാവരും നന്നായി ഉണരുന്നുണ്ട് പണ്ടത്തെ പോലെതന്നെ എല്ലാവരും വന്നു തുടങ്ങിയിട്ടുണ്ട് ടൂറിസത്തിൽ നല്ല വരുന്നുണ്ട് ടൂറിസത്തിൽ വർക്ക് ചെയ്യണ ആൾക്കാർക്ക് തന്നെ ഇപ്പോൾ നമ്മള് ഗവണ്മെൻ്റ് ജോലിയിൽ അല്ലാണ്ട് നമ്മള് ടൂറിങ്ങില് വർക്ക് ചെയ്യുന്ന പാ ഇപ്പോൾ ഗാർഡ്സ് അങ്ങനത്തെ സെക്യൂരിറ്റികൾക്ക് ഭയങ്കര പ്രശ്നങ്ങൾ ഒക്കെ തന്നെ ആയിരുന്നു കൊറോണ സമയത്ത് പിന്നെ പിന്നെ അത് ഇപ്പം കുഴപ്പം ഒന്നും ഇല്ല നന്നായി മുന്നോട്ട് പോകുന്നുണ്ട്